എന്നാ ഉണ്ട് വിശേഷം വീട്ടിൽ എല്ലാവരും എന്നാ പറയുന്നു എടാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വേൾഡ് കപ്പിനെ കുറിച്ചു എങ്ങനെയാണ് എന്നായിപ്പം ഇപ്പോഴത്തെ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്നായി കളി ഇപ്പോൾ വർക്കിൻ്റെ ഇതിൽ നിൽക്കുവാണ് അറിയത്തില്ല ഒന്നും തിരക്കാണ് തിരക്കൊഴിയുന്ന പോലെ വരാം മ്മ് അതാ ഈ വർഷം ആരൊക്കെ ഇറങ്ങുന്നുണ്ട് ആ ഓക്കേ ദെൻ ആഹാ ആഹാ ആഹാ ഓഹോ ഓഹോ ആഹാ ഇപ്പം പ്ളയേർസിന് മാറ്റം വല്ലതുമുണ്ടോ ജപ്പാനും അവരക്കെ തന്നെയാണോ ജപ്പാനൊലെ അവരൊക്കെ തന്നെ ആണോ പ്ലെയേഴ്സിന് മാറ്റമുണ്ടോ ആ ഇട്ടിട്ടില്ലായിരുന്നു അല്ലേ ആ ശരിയാണ് ശരിയാണ് ഓക്കെ ഓക്കെ ഓ അത് ഒരു തോൽവി ആയിരിക്കും മിക്കവാറും തോൽവി ആയിരിക്കുകയും ചെയ്യും തോക്കുമോ ഇല്ല

ആഹാ ഓ റൊണാൾഡോ തന്നെ റൊണാൾഡോ തന്നെ ജയിക്കാനേ സാധ്യതയുള്ളു കാരണം ആ മറ്റവന്മാരുടെ ടീം അത്ര പോരല്ലോ അർജെൻ്റീനയുടെ അത്ര സെറ്റ് അല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ജയിക്കുമെന്ന് മ്മ് അതേ അതേ അതേ മ്മ് മ് ആ അതെ അതെ ആഹ് ശുഭ പ്രതീക്ഷ നൂറ് ശതമാനം വിജയം അതേ അതേ അതേ നമുക്ക് കളി കാണാൻ ഒന്നിറങ്ങണം അതേ അതേ ഒന്ന് വരണം ഞാൻ ആലോചിക്കുന്നു കഴിഞ്ഞ കൊല്ലം പോയതാണ് ഈ പ്രാവശ്യം പോയില്ലെങ്കിൽ ആ ഒരു ടച്ച് കിട്ടില്ല മ്മ് അതേ അതേ

ഇയ്യോടാ ശരിയാണ് ഓകെ അതൊന്ന് ശ്രദ്ധി ക്കുക ഞാൻ ഇവിടെ നാട്ടിൽ ഇല്ലാത്തതു കൊണ്ട് നിങ്ങൾ ഒന്ന് കൈകാര്യ ചെയ്തേക്കാമോ മ്മ് ആ ആ ഓക്കെ

അത് ഒന്ന് നോക്ക് അത് ആ ശരിയാണ് നമ്മളെ

ആ ബ്ലാക്കിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് മേടിച്ചോ ഒന്നും നോക്കേണ്ട മ്മ് അതായിരിക്കും നല്ലത് മ്മ് ഓക്കെ ഓക്കെ ആരാ ആരാ ആ ഓ അവർ ജയിക്കാൻ സാധ്യത കുറവാണ് മ്മ് ആ ആ മ്മ് ശരി എന്നാൽ ഞാൻ എന്നാൽ വിളിക്കാം വിളിച്ചോ